നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോതു ഓരോ തരത്തിൽ നമ്മൾ എല്ലാം മെച്ചപ്പെട്ട് വരികയാണല്ലോ അപ്പൊൾ നമ്മൾ പാചകത്തിലും വിവിധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊൾ ഇത് കുറെ കാര്യങ്ങൾ നമുക്ക് അറിവില്ലായ്മയും വരുന്നുണ്ട് ഞാൻ ഇത് കുറച്ചും കൂടെ ഇതിനെ കുറിച്ച് അറിയാനായിട്ട് കുക്കറി റിയാലിറ്റി ഷോകൾ കാണാറുണ്ട് ടീവിയിൽ ഏത് പ്രോഗ്രാം വന്നാലും കാണാറുണ്ട് അത് കാണുമ്പോൾ അവരത് എങ്ങനെയൊക്കെ എന്തൊക്കെ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ പാചകം ചെയ്തെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു കൂടാതെ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരുന്നു അത് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പൊൾ പിന്നെ നമ്മൾ അത് വീട്ടിൽ പരീക്ഷിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതേപോലെ തന്നെ ചെയ്ത് എടുക്കാനും പറ്റുന്നു അങ്ങനെ ഈ റിയാലിറ്റി ഷോകളിലൂടെ ഒരുപാട് പരിപാടികളിൽ ഒക്കെ നമുക്ക് അറിവുകൾ കിട്ടുന്നുണ്ട് ഇങ്ങനെ പാചക പരീക്ഷണൾ നമ്മൾ നടത്തുന്ന വഴി നമുക്കും പുതിയ അനുഭവ പുതിയ പാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു അത് പുതിയ ഓരോരോ അനുഭവങ്ങൾ ആകുന്നു അങ്ങനെ എല്ലാ പാചക പരിപാടികളും ഞാൻ കാണാറുണ്ട് എല്ലാ പാചക റിയാലിറ്റി ഷോ